ഞങ്ങളുടെ പ്രദേശത്ത് സാങ്കേതിക സഹായ ടീച്ചിങ്ങ് സപ്പോർട്ട് സിസ്റ്റം എന്ന സംവിധാനം നിലവാരം നല്ല നിലവാരത്തിലൂടെയാണ് പോകുന്നത് അതിൽ കൂടുതലും നമ്മളെ സഹായിക്കുന്നത് നെറ്റ് വഴിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇപ്പോള് ടവർ ലൊക്കേഷനും കൊണ്ട് നമ്മുടെ ഓരോ സിമ്മിനും ഓരോ റേയ്ഞ്ചുകളും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ നമുക്ക് കൂടുതലിപ്പോള് ടീച്ചിങ്ങ് സപ്പോർട്ടെന്ന് പറയുമ്പോഴ്ത്തേക്കും നമുക്ക് കൂടുതലിപ്പോള് ഗൂഗിൾ മീറ്റ് വാട്സപ്പ് ഫേസ് ബു അങ്ങനെ കുറേ കാര്യങ്ങള് നമ്മളിതിൽ വരുന്നു വരുന്നുണ്ട് അതില് കൂടുതല് നമ്മള് നല്ല കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പോകുന്നത് പിന്നെ കൂടുതൽ നമുക്കീ നമ്മുടെ പ്രദേശത്താണ് കൂടുതലും ലോക്കൽ ചാനലുകളുള്ള കെ സി വി എ സി വി അങ്ങനെ കുറേ ലോക്കൽ ചാനലുകളുണ്ട് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ നമ്മുടെ പ്രദേശത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്നറിയുവാനും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം മനസ്സിലാക്കി തരുവാനും ആ സാങ്കേതിക വിദ്യ ഉപയോഗിക്ക്യേ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഉപയോഗിക്കാറുമുണ്ട് നല്ലതുമാണ് പിന്നെ നമുക്ക് എന്നാ ടവർ ലൊക്കേഷൻ നമ്മുടെ ഇപ്പോള് ടവർ നമുക്ക് നെറ്റ് പ്രോബ്ലം വരുക വരാറില്ല എല്ലാ സിമ്മുകൾക്കും എല്ലാ കാര്യങ്ങൾക്കെല്ലാം റേയ്ഞ്ച് കിട്ടാനും പിന്നെ വൈഫൈ കൂടുതലായിട്ടുപയോഗിക്കുമ്പോള് നമ്മുടെ നെറ്റ് സംബന്ധമായിട്ടൊത്തിരി കാര്യങ്ങൾക്ക് നമുക്ക് കാര്യങ്ങള് നമുക്ക് നടക്കുന്നുണ്ട് എന്നുവച്ചാല് നെറ്റിലെ എല്ലാ കാര്യം നെറ്റുള്ളതുകൊണ്ട് നമുക്കെല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് എന്നുവച്ചാല് സാങ്കേതിക ബുദ്ധിമുട്ടുകളൊന്നും തകരാറുകളും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല പിന്നെ വരുന്നെന്ന് പറയുന്നത് നമ്മള്ക്ക് ഇപ്പോള് നെറ്റ് വഴിയുള്ള കാര്യങ്ങള് കൂടുതല് നമുക്കറിയാൻ ഇപ്പോള് അറിയാൻ സാധിക്കുന്നുണ്ട് ഇപ്പോള് ന്യൂസ് ചാനലുകളാണേലും എല്ലാം നമുക്ക് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അറിയാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെയാണുള്ളത് പിന്നെ നമുക്ക് നമ്മുടെ സമൂഹത്തിലെ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിനും കൂടുതൽ പ്രയോജനപ്പെടുന്ന കാര്യങ്ങളുമാണ് ടീച്ചിങ്ങ് സപ്പോർട്ട്